ഞങ്ങളുടെ ഗ്രാമത്തിലൊരു പുഴയുണ്ട് കോട്ടപ്പുഴ പിന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കിണറുകൾ പഞ്ചായത്ത് കിണർ എല്ലാമുണ്ട് ജലജ വെള്ളം പുഴയുടെ വെള്ളം വറ്റാത്ത വെള്ളമാണ് വർഷങ്ങളോളം വളരെ പഴക്കമുള്ള പുഴയാണ് വർഷത്തോളം നിൽക്കുന്നതാണ് വെള്ളമുണ്ട് പിന്നെ പഞ്ചായത്ത് കിണർ പിന്നെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയുണ്ട് വെള്ളത്തിനൊന്നും ഒരു ഇതും ഇല്ല പഞ്ചായത്തിൻ്റെ എല്ലാ ഇതും ഉണ്ടവിടെ ഇപ്പോൾ കുടിവെള്ളമുണ്ട് കിണറുണ്ട് പിന്നെ അതു ഇത് ഇല്ലെങ്കിൽ പുഴയുണ്ട് പുഴയുടെ വെള്ളം എടുക്കുന്നതാണ് വർഷം മുഴുവൻ നീണ്ട് നിൽക്കുന്നതാണ് വെള്ളം കുറവൊന്നും ഇല്ല ഇനി മഴക്കാലം അല്ലെങ്കിലും വേനലായാലും പുഴയിൽ വെള്ളമുണ്ടാകും പഞ്ചായത്തിൻ്റെ വെള്ളവും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് നല്ല ജലസ്രോദസ്സാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ കുഴപ്പമൊന്നുമില്ല ഇതു വരെ ആർക്കും അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല എല്ലാവർക്കും പഞ്ചായത്ത് കിണറുണ്ട് പൈപ്പുണ്ട് പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധ്യതിയുണ്ട് എല്ലാ വെള്ളമെടുക്കുന്നുണ്ട് പുഴയുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഇത് തന്നെയാണ് ഒരു പ്രശ്നവുമില്ല